പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു കലാരൂപമായിരുന്നു സിനിമ എന്നത് ഇന്ന് നമ്മൾ നില്ക്കുന്ന ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിനിമകൾ വളരെയധികം മാറിക്കഴിഞ്ഞു പത്തൊൻപതാം നൂറ്റാണ്ടിലെ സിനിമകൾ എന്ന് എന്നു പറയുന്നത് വെറും ഓടിക്കൊണ്ടിരുന്ന ഒന്നായിരുന്നു എന്നാൽ ഇന്ന് ആനിമേഷനും ഗ്രാഫിക്സും അങ്ങനെയുള്ള പലതും കൂടി സിനിമകൾ റിയലായി അനുഭവപ്പെടുന്ന ഒരു കാലമാണ് ഇന്ന് നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ് ഓരോ സിനിമയിലും ഓരോ രീതികളാണ് ടോളിവുഡും വോളിവുഡും ഹോളിവുഡും എല്ലാ ഭാഷകളിലും ഉള്ള സിനിമകളും ഇന്ന് വ്യത്യസ്തമായി ഓരോ ന്നിനും മികച്ചതായി കാണുവാൻ നമുക്ക് സാധിക്കുന്നു സിനിമകളിൽ തന്നെ പലതുണ്ട് റൊമാൻറ്റിക് മൂവി ഹൊറർ മൂവി അങ്ങനെ പല തരം മൂവികൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കുന്നു സിനിമകള് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് ചോദിച്ചാല് ഒരിക്കലും പറയാൻ പറ്റില്ല എല്ലാത്തര സിനിമകളും നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് ഓരോ സിനിമയിലും ഓരോ രീതിയാണ് ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ സിനിമയാണ് ഓരോന്ന് സിനിമ നമ്മളെ കാണിക്കും എന്ന ഓരോ കാലഘട്ടം എങ്ങനെ ആയിരുന്നു എന്നതാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ സിനിമകൾ ഓടുന്ന സ്ക്രീനില്ക്കൂടെ ആൾക്കാര് പോവുകയായിരുന്നു ഓടി കാണിക്കുന്ന അത് കഴിഞ്ഞ് ടെക്നോളജി മാറി നമ്മുടെ ടെക്നോളജി മാറിയതിൻ്റെ ഫലമായി നമ്മുടെ സിനിമകൾ ആനിമേഷൻ രൂപങ്ങളില് കാലുവയ്ക്കാൻ തുടങ്ങി ഇന്ന് നാം കാണുന്ന സിനിമകളും പണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സിനിമകളും വളരെ വളരെ വ്യത്യാസമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സിനിമ എന്ന് പറയുന്ന ബ്ലാക്കാൻഡ് വൈറ്റായിരുന്നു ഇന്നത്തെ സിനിമ എന്നു പറഞ്ഞാൽ റിയൽ കളറുകളുടെ ആനിമേഷൻ വേൾഡാണ് ഇന്ന് സിനിമകൾ മാത്രമല്ല എല്ലാ സാധനങ്ങളും ആനിമേഷൻ ഗ്രാഫിക്സിലും എഡിറ്റിങ്ങിലൂടെ എല്ലാം റിയലായിട്ടാ അനുഭവപ്പെടുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെതന്നെ സംഗീതം സംഗീതം പണ്ടേ പണ്ടേക്കൂ പണ്ടേ കൊട്ടാരങ്ങളിൽ തന്നെ തുടങ്ങി ഒന്നായിരുന്നു സംഗീതം എല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നു സംഗീതം എല്ലാവർക്കും ഉണർവും സന്തോഷവും ഏകുന്നു മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സംഗീതം സിനിമകളിൽ എല്ലാം ഒരുപോലെ ഇഷ്ടമാണ് സിനിമകളിൽ കൂടുതലും കാണാൻ കോമഡി സിനിമകളാണെങ്കിൽ ഇഷ്ടം എല്ലാ കുടുംബാംഗങ്ങള്ക്കും കോമഡി സിനിമകളാണ് കാണാൻ താല്പര്യം ഹൊറർ മൂവി കാണുന്നവരുണ്ട് പക്ഷേ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ് ഹൊറർ മൂവികൾ കോമഡി മൂവികളാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരുന്ന് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒന്നാണ് കോമഡി സിനിമകൾ റൊമാൻറ്റിക് മൂവിയുണ്ട് പല ഭാഷകളിലുള്ള സിനിമകൾ ഇന്ന് നമുക്ക് അവൈലബിളാണ് എല്ലാത്തരത്തിലും എല്ലാം ആനിമേഷനാണ് ഒന്നുമാത്രം നോക്കിയാൽ മതി സിനിമ എന്തുപറയുന്നു എന്ന് എല്ലാം ഓരോ സിനിമയും ഓരോ കാലഘട്ടം കാണിച്ച് തരുന്നതാണ് മലയാളത്തിലെ വ്യത്യസ്തമായ സിനിമകളുണ്ട് ഓരോ പ്രതിസന്ധികളെ എങ്ങനെയാണ് മനുഷ്യൻ നേരിട്ടത് എന്ന് കാണിക്കുന്ന ഓരോ സിനിമകൾ അങ്ങനെയൊക്കെ വച്ചു നോക്കുമ്പോൾ സിനിമയൊക്കെ വളരെ നല്ലതാണ് ഇന്ന് ടെക്നോളജിയുടെ കാലത്ത് സിനിമകൾ ഏറ്റവും അങ്ങേയറ്റത്ത് നില്ക്കുന്ന ഒന്നാണ് നാം വിചാരിക്കുന്നതിലും അപ്പുറത്താണ് ഇന്ന് ഓരോ സിനിമയും ഇറങ്ങുന്നത് ഓരോ സിനിമയുടെയും പുറകിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് നമുക്കറിയില്ല അത് സംവിധാനം ചെയ്യണം എഴുതണം അതിന് ആൾക്കാരെ കണ്ടുപിടിക്കണം അതിന് ആ വരുന്നവർക്കുള്ള ഡ്രസ്സ് ഭക്ഷണം അങ്ങനെ ഇഷ്ടംപോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എവിടെ ഷൂട്ട് ചെയ്യും ഇതൊക്കെ ഓരോ സിനിമ എടുക്കുന്നവർക്കേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ സിനിമ എന്നത് എല്ലാവരെയും ഒരുപോലെ ആസ്വദിക്കുന്ന ഒന്നാണ് സംഗീതം സംഗീതത്തിൽ പല തരം ഉണ്ട് ഓരോ ഇന്ത്യൻ സംഗീതം ഹൈദരാബാദിക് സംഗീതം അങ്ങനെ പല സംഗീതങ്ങള് ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു സംഗീതം എല്ലാം നമുക്ക് മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ മനസ്സിനെ ഒന്ന് ചിന്തിക്കാനും ഒരു അവസരം കൂടിയാണ് ഓരോ സംഗീതം നമുക്ക് നൽകുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ ടോവിനോയാണ് എന്തുകൊണ്ടെന്നുവച്ചാൽ എല്ലാവരെയും ഇഷ്ടമാണ് അതിൽ ഒരു പടി ഉപരി ടോവിനോടോയാണ് ഒരു പടി ഇഷ്ടം കൂടുതൽ എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ മനസ്സിന് ഒരാശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ മിന്നൽ മുരളി അങ്ങനെയുള്ള ഓരോ സിനിമകൾ കാണുമ്പോഴും മനസ്സിനൊരാശ്വാസമാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഞാൻ അത്രമാത്രം സംഗീതം ഒരുപാടുണ്ട് സംഗീതത്തിൽ ഇഷ്ടമാവുന്ന സംഗീതത്തിൽ തന്നെ ഇഷ്ടം പോലെ ഇന്നു നാം നോക്കുന്ന സംഗീതം ഒരുപാടു മാറിയിരിക്കുന്നു എത്രയോ എത്രയോ ഗായകരാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ളത് അതും ഏതൊക്കെ രീതിയിൽ പാടുന്നവരാണുള്ളത് നമ്മുടെ സംഗീതങ്ങൾ സംഗീതങ്ങളും സിനിമകളും എല്ലാം മോഡിഫൈ ചെയ്ത് ഓരോ ഓരോന്നിൻ്റെ കാലഘട്ടത്തിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നാം മനപ്പൂർവം ഒന്നിനെയും ഉപേക്ഷിക്കാൻ പാടില്ല എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം എൻ്റെ ഇഷ്ടപ്പെട്ട ഗായിക എന്നു പറയുന്നത് സുജാത ചേച്ചിയാണ് സുജാത ചേച്ചിയുടെ ഓരോ ഗാനത്തിനും നാം ഇഷ്ടം പോലെ ആണ് സുജാത ചേച്ചിയുടെ സൗണ്ട് മധുരമായ സൗണ്ട് ഈണമായ പാട്ടുകൾ എല്ലാം മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഓരോ വരികളാണ് സിനിമയിലുമുണ്ട് സംഗീതം സംഗീതത്തിലൂടെയാണ് സിനിമ തന്നെ വളരുന്നത് സിനിമയിലും സംഗീതവും സിനിമയും ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമയിലുള്ള സംഗീതങ്ങളും അല്ലാത്ത സംഗീതവും നാം കേട്ടാസ്വദിക്കുന്നവരാണ് ഇന്നീ ലോകത്ത് സിനിമകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പലവർക്കും പലതാണ് നമുക്കറിയാം സിനിമകളിൽ നമുക്ക് നമ്മുടെ ഇമാജിനേഷന് അല്ലെങ്കിൽ നമ്മുടെ വികാരത്തെ മാറ്റിമറിക്കാനുള്ള ഒന്നാണ് ഇന്ന് ഈ ലോകം കാണിച്ചുതരുന്ന സിനിമകളെന്ന് പറയുന്നത് സിനിമയിൽ നാം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് പാട്ടുകളാണ് സംഗീതം ഓരോ സംഗീതത്തിനും അതിൻ്റെ വരികൾക്ക് അതിൻ്റെതായ അർത്ഥമുണ്ട് നാം എല്ലാവരെയും ഒരുപോലെ കാണണമെന്നില്ല എല്ലാവർക്കും അതുപോലെ സംഗീതവും സിനിമയും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് സിനിമയാകാം ചിലവർക്ക് സംഗീതവുമാകാം എന്തായാലും രണ്ടും മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ് എന്ന് അറിയിക്കാം പിന്നെ കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓരോ സിനിമകളും ഇറങ്ങുന്നത് ഓരോ ഓരോ രീതിയിലാണ് ആക്ഷൻ മൂവി ത്രില്ലർ മൂവി അങ്ങനെ പല പല സിനിമകളിന്ന് നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിലും അഭിനയിക്കുന്നവരുണ്ട് ഇത് സംഗീതവും ഇതുപോലെ തന്നെയാണ് സംഗീതം പാടി അഭിനയിക്കുന്നവരുണ്ട് ജീവിച്ച് അഭിനയിക്കുന്നവരുണ്ട് എല്ലാം സംഗീതത്തിൻ്റെതായ ഓരോ രീതികളാണ് ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സിനിമകളും സംഗീതങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ് സംഗീതത്തിലെ മധുരമായ ഗാനങ്ങൾ രാത്രിയിൽ നമ്മളെ തലോടി ഉറക്കുന്ന എത്രയോ മനോഹരമായ ഗാനങ്ങൾ നമ്മൾക്കിന്ന് സംഗീതത്തിൽ കാണാൻ പറ്റും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനെ തന്നെ ശാന്തമാക്കുന്ന എത്രയോ ഗാനങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറ് നമ്മുടെ കൈവിട്ടു പോകുമ്പോൾ ഒരു പാട്ടിലൂടെയായിരിക്കും നാം തിരിച്ചു കൊണ്ടുവരിക അതുപോലെ തന്നെയാണ് ഓരോരുത്തരും